ഞാൻ നേരിൽ കാണാൻ ആഗ്രഹിക്കപ്പെടുന്നൊരു സിനിമാതാരമാണ് ദുൽഖർ സൽമാൻ നമ്മുടെ എവർഗ്രീൻ താരമായിട്ടുള്ള മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക ഞാൻ ചെറുപ്പം മുതലേ തന്നെ കുഞ്ഞിക്കയുടെ ഒരു ഡൈഹേർട്ട് ഫാനാണ് എന്തുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞിക്കയുടെ ആക്ടിങ് കുഞ്ഞിക്ക സ്ടര്ഗ്ഗളെയ്ത് വന്നൊരു ഫീൽഡ് അതൊക്കെയെനിക്ക് വളരെ ഇഷ്ടപെട്ടതാണ് വെച്ച കുഞ്ഞിക്കയുടെ അവരുടെ കുഞ്ഞിക്കേടേതായൊരു ആക്ടിങ് സ്റ്റൈലുണ്ട് അത് ഞാൻ വളരെ ലൈക്കെയുന്നൊരാളാണ് എന്താന്ന് വെച്ചാൽ കുഞ്ഞിക്ക പണ്ടൊരു നമ്മുക്കൊരു വീഡിയോസൊക്കെയുണ്ട് കുഞ്ഞിക്കൊരു സിനിമേൽ ഒരു കോളേജില് ഗസ്റ്റായി ചെല്ലുമ്പം എല്ലാവരും കൂക്കി വിളിച്ചിട്ട് അവരെ അങ്ങട് അധിക്ഷേപിച്ച് വിടുന്നൊരു അവിടെനിന്ന് കുഞ്ഞിക്ക എവിടേങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതയാളുടെ പുള്ളിയുടെ ഒരു ഹാർഡ്വർക്കാണ് ഒന്നുമില്ല നമ്മുടെ മമ്മൂട്ടീയുടെ മകനെന്നുള്ളൊരു പ്രയോരിറ്റിണ്ടെങ്കിപ്പോലും കുഞ്ഞിക്കേടേതായിട്ടുള്ളൊരു സ്ടര്ഗ്ഗളിങ് പിരീഡിലൂടെ കടന്ന് വന്നിട്ടാണ് ഇവിടെവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ദുൽഖറിനെ വളരെയിഷ്ടപ്പെട്ടൊരാളാണ് ദുൽഖറിന് എല്ലാ സിനി ഫിലിമ്സിനും എനിക്കതിൻ്റെതായ സ്റ്റൈല് കീപെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് വിക്രമാദിത്യൻ സോളോ ആൻഡ് അങ്ങനെ എല്ലാ സിനിമകളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു കഴിവ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കുഞ്ഞിക്കേടെയൊരു ഡൈഹേർട് ഫാന് തന്നെ ആണ് അദ്ദേഹത്തെ നേരിൽകണ്ടാൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കൊസ്ട്യൻ എങ്ങനാണ് സർ ഇങ്ങനെ എല്ലാ ഫിലിംസിലും അത് അതിൻ്റെതായൊരു ശൈലി കീപെയ്യാൻ സർ എങ്ങനെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നൊരു കൊസ്ട്യൻ